ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പാചകം ചെയ്യുന്നത് വളരെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാമാണ് ഓംലേറ്റ് ചായ അതുപോലെത്തന്നെ എല്ലാവർക്കും ആവശ്യമുള്ള വളരെ ചെറിയ ചെറിയ കറികളെല്ലാമാണ് ഞാൻ പാചകം ചെയ്തത് എൻ്റെ അളവ് പ്രകാരം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പാചക വിഭവം എന്നുപറയുന്നത് സദ്യയായിരിക്കണം ഒരുപാട് കറികളും അതിനനുസരിച്ച് സ്വാദും അതിനനുസരിച്ച് രണ്ടും മൂന്നും പായസങ്ങളെല്ലാം ഉണ്ടാക്കുക എന്നത് തന്നെ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുവാൻ ബുദ്ധിമുട്ടാകുന്നത് സദ്യയാണ് ഞാൻ ഒട്ടുമിക്ക എല്ലാ പാചകങ്ങളിലും ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമായും ഫുഡ്ഡുകൾ ഉണ്ടാക്കുന്നതിൽ